ഹലോ ആ പറഞ്ഞുകൊള്ളൂ പറഞ്ഞുകൊള്ളൂ മേഡം ആ ഓക്കെ ഓക്കെ വെൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് വയനാട്ടില് ഇഷ്ടം പോലെ സ്ഥലങ്ങള് കാണാനുണ്ടല്ലോ ആ ഓക്കെ ഓക്കെ മേഡം എന്നാണ് വരാനുദ്ദേശിക്കുന്നത് ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ മേടത്തിന് ആ ഓക്കെ ഓക്കെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം നോക്കേണ്ടേ ആ ഫുഡ് ആന്ഡ് അക്കമഡേഷനൊക്കെയുണ്ടാകും എല്ലാം കൂടെയൊരു എട്ട് ദിവസത്തേക്കല്ലെ നിങ്ങള് പറഞ്ഞത് ആ എട്ട് ദിവസത്തേക്കാണെങ്കില് നമുക്ക് ഞങ്ങള് സാധാരണ ഒരു ദിവസത്തേക്ക് ഒരു വലിയ വീടായിട്ടും കൊടുക്കുന്നുണ്ട് കോട്ടേജായിട്ടും കൊടുക്കുന്നുണ്ട് വീടാണെങ്കിൽ പതിമൂവായിരം രൂപ വരുന്നുണ്ട് ഒരു ദിവസത്തേക്ക് പിന്നെ കോട്ടേജാണെങ്കില് രണ്ടായിരത്തിയഞ്ഞൂറ് മൂവായിരം രൂപതൊട്ട് വരുന്നുണ്ട് അപ്പോള് ഏതാണ് വേണ്ടത് മേഡത്തിന് ആ അത് പറഞ്ഞാല് മതി റേയ്റ്റിൻറ്റെ കാര്യം പിന്നെപ്പറഞ്ഞാല് മതി മേഡത്തിന് വയനാട്ടില് മുത്തങ്ങ അങ്ങനെ ഇഷ്ടംപോലെ മുത്തങ്ങ ഫോറസ്റ്റുണ്ട് പിന്നെ തോൽപ്പെട്ടി ആ ആ ആ ഓക്കെ അപ്പോള് കൂടെ ഗേയ്ഡിനൊരാളെ ഒരു ആളെ വിടുന്നതായിരിക്കും നമ്മള് ഇവിടെനിന്ന് ഓക്കെ അപ്പോള് അവരുടെ എക്സ്പെൻസും കൂടെ കൊടുക്കേണ്ടിവരും പിന്നെ നമ്മള് അവർക്ക് തൊള്ളായിരം രൂപ വെച്ച് വരും ഒരാൾക്ക് രാവിലെ ഒമ്പത് തൊട്ട് വൈകിട്ട് ആറ് മണിവരെ ആത് കുറച്ച് നമ്മുടെ ഈ ടൈം പറഞ്ഞത് കുറച്ചങ്ങോട്ടുമിങ്ങോട്ടുമൊക്കെ മാറും ടൈം മാറിയാലും കുഴപ്പമൊന്നുമില്ല ബുക്കിങ്ങ് നിങ്ങളിപ്പോള് ബുക്ക് ചെയ്യുന്നുണ്ടോ അതോ രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ദിവസം മുമ്പ് വിളിച്ചാല് മതി ബുക്ക് ചെയ്താല് മതി കുഴപ്പമില്ല ഇപ്പോള് ബുക്ക് ചെയ്യണമെങ്കില് ഇപ്പോള് ബുക്ക് ചെയ്യാം ആ ഓക്കെ ഓക്കെ ആ ഓക്കെ ശരി കാണാം